ഈ അടുത്ത് ഞാൻ എക്സ് വൈ സെഡ് കമ്പനിയുടെ ഒരു മൊബൈൽ ഫോൺ വാങ്ങി എനിക്ക് അതിൽ നിന്ന് വളരെ മോശം അനുഭവമാണ് ഉണ്ടായത് കാരണം എന്തെന്നാൽ മൊബൈൽ ഫോണിൽ സിമ്മ് നേരെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിന് ഹെഡ്സെറ്റ് അവർ മൊബൈൽ ഫോൺ വാങ്ങുന്നതിൻറ്റെ ഒപ്പം ഹെഡ്സെറ്റും ചാർജറും തന്നതും ഇല്ല അത് അതിൽ സിം ഇട്ടതിന് ശേഷം റേഞ്ച് എല്ലാം കാണിക്കുണ്ടായിരുന്നു പക്ഷെ കോള് വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കട്ടായി പോകുവായിരുന്നു ഞാന് എന്താണെന്ന് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് സിമ്മിൻറ്റ കുഴപ്പമായിരിക്കും എന്നാണ് പക്ഷെ എൻ്റെ ഈ സിമ്മ് മറ്റ് എല്ലാ ഫോണുകളിലും വളരെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ പഴയ ഫോൺ ഇടുമ്പോൾ അത് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ പഴയ ഫോണിന് കുറച്ച് മെമ്മറി കൂട്ടണം മെമ്മറി കുറവായത് കാരണം കുറച്ച് മെമ്മറി കൂടിയ ഫോൺ വാങ്ങിക്കണംന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഫോൺ വാങ്ങിയത് പക്ഷെ ഇത് വളരെ മോശം അനുഭവം ആയി പോയി സർവീസ് സെൻറ്റർകാരും വളരെ ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറി എൻ്റെ സിമ്മിന് ഇവിടെ വള നല്ല റേഞ്ച് എല്ലാം അത്യാവിശം റേഞ്ച് എല്ലാം ഉള്ള സിമ്മ് തന്നെയാണ് പക്ഷെ ഫോണിലിടുമ്പോൾ അത് കോൾ നേരെ കണക്ട് ആകുന്നില്ല പിന്നെ ഇൻറ്റർനെറ്റ് ആണെങ്കിൽ വളരെ മെല്ലെ മാത്രമേ വരുന്നുള്ളൂ എൻ്റെ കൊച്ചുമകൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഫോണ് വാങ്ങിച്ചത് പക്ഷെ ഫോണിൽ നിന്നുള്ള അനുഭവം എനിക്ക് വളരെ മോശമായിരുന്നു അതിൽ വാർത്തകളൊന്നും കാണാനും പറ്റുന്നില്ല നേരേ കോളുകൾ സ്വീകരിക്കാനും പറ്റുന്നില്ലാ ആരെയെങ്കിലും അങ്ങോട്ട് വിളിച്ചാലും ഒരു കുറച്ച് നേരം രണ്ടോ മൂന്നോ മിനിറ്റ് സംസാരിച്ചാൽ തന്നെ അത് കോള് കട്ടായി പോകുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഒപ്പം അവർ ഹെഡ്സെറ്റ് പിന്നെ ചാർജർ മുതലായ സാധങ്ങൾ അനുവദിച്ചതുമില്ല ചാർജർ എങ്കിലും അവർ തരണമായിരുന്നു ഇതിപ്പൊൾ ഫോണും വാങ്ങിച്ച് ചാർജർ വേറെ വാങ്ങിക്കേണ്ട അവസ്ഥ അവസ്ഥയാണ് ഉള്ളത് അത് വളരെ മോശമായി തോന്നി